കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കർഷകരെ നമ്മള് നോക്കുവാണങ്കിൽ അവരേറ്റവും കൂടുതല് ഇപ്പം കേ പ്രശ്നം നേരിടുന്നത് അവർക്ക് പരിശീലനം ഇല്ലായ്മയും ടെക്കനോളജി യൂസ് ചെയ്യാത്ത ഒര് സിറ്റുവേഷൻ വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശത്തിലെ കർഷകര് ഫേസ് ചെയ്യുന്ന പ്രശ്നം നമ്മള് ആധുനിക മായ പല ടെക്നോളജികളും ഇപ്പോഴ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പം ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളും നോക്കുവാണങ്കിലും അവിടെ ആയാലും കേരളത്തിലായാലും പ്രാചീനമായ കർഷക രീതിയാണ് മിക്കവരും ഫോളോ ഏയ് ഫോളോ ചെയ്ത് വരുന്നത് അപ്പം അത് വച്ച് നോക്കുവാണെങ്കി പുതിയ കർഷ കൃഷി രീതികൾ ഉപയോഗിക്കണം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടെത്താൻ പറ്റത്തുള്ളൂ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കേരളത്തിലെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നവാണ് കാലാവസ്ഥ വ്യതിയാനവും കറക്റ്റായിട്ടുള്ള കാലാവസ്ഥ പ്രവചനമില്ലായ്മയും എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നവാണ് ചെറുകിട കർഷകരെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലവര് ഗ്രാമത്തിലെ കർഷകരെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ് കാരണം ഇപ്പോൾ നാളെയാണ് വിളവെടുക്കാനവര് തീരുമാനിച്ചേയ്ക്കുന്നത് ഡേയ് തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റെങ്കിൽ ഇന്ന് രാത്രി മഴ പെയ്ത് കൃഷി നശിച്ച് പോകുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ട് പ്ര ഒരു കാലാവസ്ഥ പ്രവചന രീതി ശെരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തില് ഉണ്ടാകുന്നത് ഇപ്പം ആലപ്പുഴ ഉള്ള നെല്ല് നെല്ലിൻ്റെ കാര്യം നെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് തണ്ണീർമുക്കം അല്ലെ അ ആ തണ്ണീർമുക്കം ബണ്ട് ഇതൊക്കെ നോക്കുവ ഇതൊക്കെ വന്നത് തന്നെ ഈ കാലാവസ്ഥ പരമായ ഈ കർഷകര് ബാധിക്ക് ബാധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റ് സ്ഥാപിച്ചതും ഒക്കെ ചെയ്തത് ഇപ്പോൾ പാലക്കാട് നമ്മള് പാലക്കാടിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പാലക്കാടില് വരൾച്ചയാണിപ്പം കണ്ട് വരുന്നത് അവിടെ വെള്ളവില്ലായ്മയും വെള്ളമില്ലാത്തൊരവസ്ഥ അവര് കൃഷി കൃഷി ഇത്രെയും ഏക്കറ് കണക്ക് കൃഷി ഉണ്ടെങ്കിലും വെള്ളമില്ലായ്മ എന്ന് പറയുന്നത് വളരെ വലിയോരു പ്രശ്നമാണ് അതിന് മെയ്നായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടൊര് ഡാമ് ഷെ ഡ്ഡാം കെട്ടിയത് കൊണ്ടാണങ്ങനെ ഉണ്ടാകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ മേയ്നായിട്ടുള്ള അവസ്ഥ നമ്മള് നോക്കുകയാണെങ്കിൽ അതൊക്കെയാണ് പ്രശ്നം പിന്നെ ഇത് കാരണം ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ആയും കർഷകരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം കൃഷി നശിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആരോടും ചോദിക്കാനില്ല ചോ പൈസ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റ് സപ്പ്ളൈക്കോയിൽ നിന്ന് സപ്പ്ളൈക്കോയിലോട്ട് അഴി അരി അല്ലെങ്കിൽ സാധനങ്ങൾ കൊടുക്കുന്ന കർഷകർക്ക് അവർക്ക് തുച്ഛമായ ഈവൻ ഗവൺമെൻറ്റായാൽ പോലും തന്നെ തുച്ഛമായൊരൂ എന്തുവാ വരുമാനം മാത്രമേ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ അതും കറക്റ്റ് സമയത്തിന് കൊടുക്കുന്നതും ഇല്ല അപ്പം ഇതൊക്കെയാണ് കേരളത്തില് ഉള്ള പ്രശ്നങ്ങൾ കർഷകര് ഫേസ് ചെയ്യുന്ന പ്രശ്നനങ്ങൾ